എനിക്ക് ഒരുപാട് സംഗീത സംവിധായകരെ വളരെയേറെ ഇഷ്ടമുള്ളതാണ് അതില് എടുത്ത് പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് വളരെയേറെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാൻ സാധിക്കുന്നവയാണ് നമ്മൾ ഒരാളോട് പറ സംഭാഷണത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വരികളിലൂടെ വളരെ വളരെ ലളിതമായിട്ട് ആവിഷ്കരിച്ച് വച്ചിരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ അപ്പോഴായിരിക്കുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഒര് പാട്ട് വെച്ചാൽ അതുമായിട്ട് വളരെയേറെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവയായിരിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേറെയും അങ്ങനെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളിലൊന്നാണ് പ്രണയവർണങ്ങൾ എന്ന സിനിമയിലെ ആരോ വിരൽ മീട്ടി എന്നത് അത് ഇദ്ദേഹത്തിൻ്റെ പാട്ടാണെന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ ഒര് കാര്യമാണ് അത്തരത്തിലുള്ള കവിതകളും പാട്ടുകളുമാണ് ഇദ്ദേഹം രചിച്ചത് അതിനാൽതന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇയാളെ